ഞാൻ രാവിലേം വൈകുന്നേരോം എന്നും ഓടാറുണ്ട് സൺഡേസ് മാത്രം പോവാണ്ടിരിക്കാണെങ്കിൽ പോവാണ്ടിരിക്കും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവൾടെ വീട് എൻ്റെ തൊട്ടപ്പുറത്താണ് അപ്പോൾ ഞാനും അവളുംകൂടെ എന്നും ഓടാറാണ് പതിവ് എത്രസമയം ഓടെന്ന്വെച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുല്ല രാവിലെ ഞങ്ങളൊരു അഞ്ചരയ്ക് പോയി കഴിഞ്ഞാൽ എത്താൻ ഒരു എട്ടുമണിയാവും ആ നേരത്തിനുള്ളിൽ ഞങ്ങൾ ഓടലുമാത്രമല്ല പാർക്കിൻ്റെ അവിടെച്ചെന്ന് സംസാരിച്ചിരിക്കേം അതല്ലാണ്ട് കളിക്കുകയൊക്കെ ചെയ്യും ഓടൽ ആ പാർക്കിൻ്റെ അവിടെ എത്തുന്നേന് അനുസരിച്ച് ഇരിക്കും ആ സമയമൊക്കെ തിരിച്ചു വൈകുന്നേരം ഞങ്ങൾ സ്ക്കൂൾ വിട്ടൊക്കെ വന്ന് കഴിഞ്ഞ് ഒരു അഞ്ചര ആകുമ്പളേക്കും ഓടിട്ട് തിരിച്ച് ഞങ്ങളൊരു ഏഴുമണി ആകുമ്പളേക്കും എത്താറുണ്ട് അതും ഈ പറഞ്ഞപോലെ തന്നെ എൻ്റെ കൂട്ടുകാരീടെ കൂടെ തന്നെ ഞങ്ങൾ ഓടാറാണ് പതിവ് വളരെ രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ രാവിലേം വൈകുന്നേരവുള്ള ഓട്ടം ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രേം രസം ഇല്ലാ ഉണ്ടാവില്ലായിരുന്നു എൻ്റെ കൂടെയുള്ള ഈ കൂട്ടുകാരിം കൂടെ ഉള്ളോണ്ട് നല്ല രസമാണ് ഒരു വ്യായാമം പോലെ ആണ് അത് ഇപ്പോൾ പിന്നെ എന്നെ പ്രേരിപ്പിക്കാൻ എന്നെ എന്താണ് പ്രേരിപ്പിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നും എനിക്ക് അവൾണെ കാണാം ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ സ്കൂളിലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ മൈനായിട്ട് ഞങ്ങളുടെ സമയം ചില ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയമാണ് ഈ ഓട്ടത്തിൻ്റെ സമയം ഞങ്ങൾ രണ്ടിരും അപ്പോൾ ഒരുമിച്ച് ഓടാൻ പോകുന്ന സമയം നല്ല രസമാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിലുണ്ടായ കഥകൾ പറയും ഞങ്ങൾ ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയമായതുകൊണ്ടന്നെ എനിക്ക് ഓടാൻ പോവാൻ നല്ല ഇഷ്ട്ടമാണ് ഞാനെന്നും ഇവൾടെ കൂടെ ഓടാൻ പോവാൻ വേണ്ടീട്ട് ഞാനെന്തു വന്നാലും ഞാൻ മാക്സിമം അതൊക്കെ ഒഴിവാക്കാൻ നോക്കാറുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് പോകാനായിരിക്കും ഞാൻ കൂടുതലും നോക്കുന്നുണ്ടാവുക ആ ഇതെല്ലം ഇതാന്ന് എന്നെ കൂടുതലും പ്രേരിപ്പിക്കുന്നത് പിന്നെ ഞങ്ങൾ വൈകുന്നേരം പോകുന്ന സമയത്ത് പോകും അങ്ങട് പോകുമ്പോൾ ഞങ്ങളെന്തെലും കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഓടാറ് അപ്പോൾ ഇതൊക്കെ നല്ല രസമാണ് ഇതൊക്കെയാണ് എന്നെ പ്രരിപ്പിക്കുന്നത്